പുതിയ തലമുറ ആണെങ്കിലും പഴയ തലമുറ ആണെങ്കിലും രണ്ടു തലമുറക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉള്ള ജനറേഷനാണ് ഇത് രണ്ടും പഴയ ജനറേഷനാണെങ്കിൽ നല്ല അച്ചടക്കവും ചിട്ടകളും അതേപോലെ എല്ലാ കാര്യത്തിനും കൃത്യനിഷ്ഠയും ടൈമിങ്ങും എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു തലമുറയാണ് പഴയ തലമുറ അത് വസ്ത്രധാരണത്തിലാണെങ്കിലും അതേപോലെ എന്ത് ഭക്ഷണ രീതിയിൽ ആണെങ്കിലും എന്തിലാണെങ്കിലും അവർക്ക് അതിന്റേതായ കാര്യങ്ങളും ചിട്ടകളൊക്കെ ഉണ്ട് പക്ഷെ പുതിയ തലമുറക്ക് അങ്ങനെയല്ല പുതിയ തലമുറക്ക് ഒക്കെയും സിംപിളായി കാണുന്നവരാണ് ഭക്ഷണം വിശക്കുമ്പോൾ കഴിക്കും അതേപോലെ അവർക്ക് ഇഷ്ടത്തിലുള്ള ഭ വസ്ത്രധാരണമാണ് അവർക്ക് ഇഷ്ടംപോലെ ഏതു വസ്ത്രം വേണമെങ്കിലും ധരിക്കാം അങ്ങനെയുള്ള ഒരു വസ്ത്രധാരണമാണ് അവർ കീപ്പ് ചെയ്യാറ് പക്ഷെ പഴയ തലമുറ ഇവരെ അപേക്ഷിച്ച് അവരിൻ്റെ പാരമ്പര്യമായിട്ടുള്ള വസ്ത്രധാരണത്തിൽ നിന്ന് അവർ മാറി ധരിക്കാറില്ല വസ്ത്രങ്ങൾ അതേപോലെ കൃത്യനിഷ്ഠ ആണെങ്കിലും സമയത്തിന് വീട്ടിലെത്താറും പഴയ ആൾക്കാർ കറക്റ്റ് സമയം രാഹുകാലം അല്ലെങ്കിൽ സന്ധ്യ സമയം അങ്ങനെയുള്ള സമയങ്ങളൊക്കെ കറക്റ്റായി കീപ്പ് ചെയ്യുന്ന ഒരു ആൾക്കാരും കൂടിയാണ് പഴയ തലമുറ പക്ഷെ പുതിയ തലമുറക്ക് അങ്ങനെയൊന്നും ഇല്ല തോന്നുമ്പോൾ വരിക തോന്നുമ്പോൾ പോകുക അങ്ങനെയൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ പക്ഷെ ഈ പഴയ തലമുറയുടെ രീതികൾ എന്താണെന്ന് പുതിയ തലമുറക്ക് അറിവില്ലായ്മയും അതേപോലെ പൂ പഴയതലമുറ പുതിയ തലമുറയുടെ ജീവിത രീതിയെ കുറിച്ചുള്ള പഴയ തലമുറക്കുള്ള എഡ്യൂക്കേഷൻ പോരായ്മകളൊക്കെയാണ് മെയിനായിട്ട് കാരണം കാരണം നമുക്ക് ഈ മിഡിലിൽ ഉള്ളവർക്ക് മാത്രമാണ് എന്താണ് പഴയതലമുറയും അവർ പറയുന്നതിന് കാരണം എന്താണെന്നും നമുക്ക് മനസ്സിലാവുകയുള്ളൂ മനസ്സിലാകുന്നത് അതേപോലെ നമുക്ക് പുതിയതലമുറയുടെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും പറഞ്ഞാൽ അപ്പോൾ ഇവർ രണ്ടുപേരെയും ഒരേ സമയം മുൻപോട്ട് കൊണ്ട് പോകുകയെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ ഉള്ള തലമുറക്ക് വളരെ ബുദ്ധിമുട്ട് ഏറിയതാണ് കാരണം പഴയതലമുറ പറയണത് ജനറേഷൻ പറയുന്നത് ഇവർ ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇത്ര മണി തൊട്ട് ഇത്ര മണിക്കുള്ളിൽ വീട്ടിൽ കയറണം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല അപ്പം അവർ തിരിച്ച് റിയാക്ട് ചെയ്യും ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്ന് പക്ഷെ ഇത് രണ്ട് ഈ മിഡിൽ തലമുറക്ക് ഉള്ളവർക്കാണ് ഇത് രണ്ടും കറക്റ്റായിട്ട് മനസ്സിലാകുന്നത് പക്ഷെ ഇവർക്ക് രണ്ടു പേർക്കും അത് മനസ്സിലാകില്ല കാരണം അത് കൊണ്ട് തന്നെ ഇവരെ രണ്ടു പേരെയും ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് ഏറിയ ഒരു കാര്യം കൂടിയാണ്